കോഴിക്കോട് ജില്ലയില് വിനോദ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ഹൈ ലൈറ്റ് മാൾ നമ്മൾ ഫ്രീയായിട്ടിരിക്കുന്നു നമുക്ക് എൻജോയ്മെൻറ്റ് വേണം എന്ന് തോന്നുമ്പോൾ നേരെ മാളിൽ പോകുന്നു ചെറുപ്പക്കാരാണെങ്കിൽ അത്യാവശ്യം നല്ലവണ്ണം വായിനോക്കാനുള്ള കളക്ഷൻസ് വരും ഒരുപാട് പെമ്പിള്ളേർ വരും ഇപ്പോൾ പല തരത്തിൽ ഇഷ്ടംപോലെ പേർ വരും ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ ഷോപ്പിങ്ങിന് ഇഷ്ടം പോലെ ഡ്രസ്സ് ഷോപ്പ് ഫൂട്ട് വെയർ ഷോപ്പ് പിന്നെന്താ സൂപ്പർ മാർക്കറ്റ് മൂവി കാണണമെങ്കിൽ സിനിമ തിയേറ്റർ അതും വെൽ ഫെസിലിറ്റേറ്റഡ് വെൽ എല്ലാ ഫെസിലിറ്റിയുള്ള അടിപൊളി തിയേറ്ററുകൾ ഒന്നോ രണ്ടോ എണ്ണം ഉണ്ടാകും പിന്നെന്താ പിന്നെ ഫുഡ് കഴിക്കണെങ്കിൽ കഫെറ്റീരിയ

ജ്യൂസ് ഷോപ്പ് പിസ്സ കൊ പിസ്സ സെൻറ്റർ അങ്ങനെ ഫുഡിൻ്റെ എന്തെല്ലാം വെറൈറ്റികളാണോ അതെല്ലാം കിട്ടും പിള്ളേരുള്ളവരാണെങ്കിൽ പിള്ളേരുമായിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരുപാട് ഗെയിം ഗെയിം ഐറ്റംസ് ഗെയിം കളിക്കാനുള്ള സ്ഥലം അതിന് പ്രത്യേക ഒരു സെറ്റ് അപ്പ് മാളിൽത്തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഹൈ ലൈറ്റ് മാൾ അടിപൊളിയാണ് എല്ലാവർക്കും പലരെയും പലരുമായിട്ട് പരിചയപ്പെടാം പലരുമായിട്ട് പെട്ടെന്ന് ലൊക്കേഷൻ പറഞ്ഞെത്താം അങ്ങനെ ഒരുപാട് സാമൂഹിക ബോധത്തിന് സംഭാവന നൽകാൻ കഴിയും